ജൈവ കൃഷിയെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ് ജൈവ കൃഷിയെ പറ്റി നമുക്കുള്ള അഭിപ്രായം എന്താണെന്നു വെച്ചാൽ മനുഷ്യ സമൂഹത്തിന് ആരോഗ്യവും സംരക്ഷണവും നൽകുന്ന ഏറ്റവും കൂടിയ ഒരു കാര്യമാണ് ജൈവ കൃഷി അണുക്കൾ ബാധ ഇല്ലാതെ ഈ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുകാന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻറ്റെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പ്രോത്സാഹനം കൊടുത്ത എല്ലാ വീടുകളിലും എല്ലാ കൃഷിത്തോട്ടങ്ങളിലും ജൈവ കൃഷി ഉണ്ടാക്കാൻ ജൈവ വളവും പറയുന്നതിനെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കൃത്യമായ ഒരു കടമയാണ് അതിനുള്ള സാഹചര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിനുള്ള അറിവുകൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും അറിയാവുന്നവരിൽ നിന്നും കൃഷിഭവനുകളിൽ നിന്നും ഒക്കെ നേടിയെടുത്ത അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുകയാണെങ്കിലേ നമുക്ക് ഇത് കൊണ്ട് നമ്മുടെ ആരോഗ്യ സ്ഥിതിയെ വളരേയധികം മെച്ചപ്പെടുത്താൻ സാധിക്കും ഇപ്പം ഏതാണ്ട് നൂറ് ശതമാനം കേസും നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന ഇതുകൊണ്ടാണ് നമ്മൾ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാലേ ഭക്ഷ്യസാധനങ്ങളിലെ വിഷാംശം അതിനടിക്കുന്ന കീടനാശിനിൻറ്റെ അളവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ ഭക്ഷ്യ സുരക്ഷയുടെ ക്രമീകരണ തെറ്റ് കൊണ്ടാണ് ഇത് നമ്മുടെ ജൈവ കൃഷികൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കുള്ള ഏറ്റവും വലിയ നേട്ടം എന്താന്നുവെച്ചാൽ നമ്മൾക്ക് വിഷം അടിക്കാത്ത പച്ചക്കറികൾ ഉപയോഗിച്ച് നമ്മുടെ ആഹാരം പാകം ചെയ്ത് നമ്മളെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കും ആകുകയാണെങ്കിൽ ഈ കൃഷി ജൈവ കൃഷി എല്ലായിടത്തും എപ്പോഴും എങ്ങനെയും നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കാനുള്ള ഒരു സാഹചര്യം പിന്നെ ഉണ്ടാകണം അതിനുവേണ്ടി സർക്കാർ കണ്ടമാനം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൃഷിഭവനിൽ നിന്നും നമുക്ക് വിത്തുകളും മറ്റു കാര്യങ്ങളും എല്ലാം സൗജന്യമായിട്ട് കുടുംബശ്രീ വഴിയും മറ്റു കാര്യങ്ങൾ വഴിയെല്ലാം നമുക്ക് സൗജന്യമായിട്ട് തന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ബ്ലോക്ക് വഴിയും ഒക്കെ നമ്മളെ ആൾക്കാർ വീട്ടിൽ വന്നു പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് എടുത്ത് അവർ കൊണ്ടുപോയി ആ സാധനങ്ങൾ നമുക്ക് തന്നു കൊണ്ടിരിക്കുകയാണ് അതാണ് ജൈവകൃഷിയുടെ ഏറ്റവും വലിയ വിജയം അങ്ങനെയൊരു പ്രോത്സാഹനം കിട്ടിക്കൊണ്ടിരിക്കുമ്പം ഇത് നമ്മൾ മറ്റുള്ള വീടുകളിൽ ഇറങ്ങി പ്രവർത്തിപ്പിച്ച് അവരെക്കൊണ്ട് ചെയ്യിപ്പിച്ച് നല്ല ഭക്ഷ്യ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആണ് എൻ്റെ ഒരു അഭിപ്രായം